കൂടുതലായിട്ടും വരയ്ക്കുമ്പോൾ എച്ച് പി എച്ച് പി നൈൻ എച്ച് പി ടെൻ അങ്ങനെയുള്ള നല്ല നല്ല പെൻസിലുകളോടെ അപ്സര ക്ലാസ്മേറ്റ്സ് തുടങ്ങിയ പെൻസിലുകൾ കൊണ്ട് വരയ്ക്കുമ്പോളാണ് കൂടുതലും ഇഷ്ടം തോന്നാറ് എൻ്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ബ്രാൻഡ് എന്ന് പറയുമ്പം അത് അപ്സരയാണ് അപ്സര കൊണ്ട് വരയ്ക്കുമ്പോളും അത് ചെയ്യുമ്പോളും നമുക്ക് ആ ഒരു വരേനോട് കൂടുതലും ഇഷ്ടപ്പെട്ട് വരയ്ക്കാൻ വേണ്ടി സാധിക്കാറുണ്ട് ഞാൻ കൂടുതലായിട്ടും എൻ്റെ അപ്സര പെൻസിലുകൾ വാങ്ങുന്നത് ഹൈപ്പർ മാർക്കറ്റിൽ നിന്നാണ് വയനാടിലുള്ള ഒരു ഹൈപ്പർ മാർക്കറ്റിൽ നിന്നാണ് ഞാൻ അപ്സര പെൻസിലുകൾ വാങ്ങാറ് അപ്സര പെൻസിലുകളുടെ വിലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത്ര വലിയ വിലയുള്ളതായിട്ട് എനിക്ക് സങ്കല്പ്പിക്കാൻ കഴിയുന്നില്ല അതിന്റേതായ ഒരു വർത്ത് ആ പെൻസിലിൻ്റെേതായ ഒരു വർത്തിന് ആ പൈസക്ക് വാങ്ങുന്നത് വളരെ ഉപകാരമുള്ള കാര്യമാണ് കാരണം നമ്മൾ അത്രയും കഷ്ടപ്പെട്ടു വരയ്ക്കുന്നൊരു പെൻസില്ന് അത്രയും വറുത്ത് അവർ ഇടുമ്പോൾ എനിക്കതിൽ വലിയ പ്രശ്നമുള്ള കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല കൂടുതലായിട്ട് എനിക്കത് പെൻസില്ന് കൂടുതലായിട്ട് ഒരു എമൗണ്ട് കാണുന്നു എന്നുള്ളതിൽ എനിക്കൊരു വിശ്വാസമില്ല